നമ്മുടെ കോഴിക്കോട് ജില്ലയിലെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളും കൃഷി രീതികളും എന്തൊക്കെയാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് കാപ്പി അതായത് കാപ്പി കുരുമുളക് അങ്ങനത്തെയൊക്കെ നമുക്ക് അതിന് മാത്രമൊന്നുമില്ലെങ്കിലും നമുക്ക് ഇഞ്ചി മഞ്ഞൾ അങ്ങനത്തെ കൃഷികളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കന്നുകാലിവളർത്തലുകളൊക്കെ കൂടുതലായിട്ടും ചെയ്ത് വരുന്നുണ്ട് കാരണമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാലിനൊക്കെ നല്ല വിലയാണ് അപ്പോൾ കന്നുകാലീനെയൊക്കെ വളർത്തിയാൽ നമുക്ക് നല്ല ലാഭമാണ് നമുക്ക് ജീവിക്കണമെങ്കിൽ ആ ഒരു പൈസ മാത്രം മതി പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ജലസേചനത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമുക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അതായത് നമുക്കിപ്പോൾ വരണ്ട ഒരു കാലാവസ്ഥയായത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു പിന്നെയെന്ന് വച്ചാൽ ഇങ്ങനത്തെ ഒരു സാങ്കേതിക വിദ്യ ആയതുകൊണ്ട് നമുക്ക് പല അതായത് പിന്നെ നെൽകൃഷിക്കെയാണെങ്കിൽ നിലം ഉഴുവാനും അതാക്കാനും ഇതാക്കാനുമൊക്കെ നമുക്ക് പല തരമുള്ള മെഷീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പല സഹായങ്ങളും അങ്ങനേയും കിട്ടുന്നുണ്ട്